നേരിൽ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമാ താരങ്ങളെന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ വച്ച് നോക്കുമ്പോൾ മോഹൻ ലാല് മമ്മൂട്ടി പറയാം കാരണം പണ്ട് തൊട്ടേ കുറെ സിനിമകൾ ചെയ്ത് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ കുറെ ആരാധകരുള്ള ഒരു താരങ്ങളാണ് അവര് അവരെയാണ് എനിക്ക് നേരിൽ കൂടുതൽ കാണാൻ താൽപ്പര്യം കാരണം പണ്ട് തൊട്ടേ എന്തിന് ഇപ്പോഴും മലയാള സിനിമയുടെ രണ്ട് തൂണുകളാണ് മമ്മൂട്ടിയും മോഹൻ ലാലും അതുകൊണ്ട് തന്നെ അവരെ കാണാൻ തന്നെയാണ് കൂടുതൽ താൽപ്പര്യം അവരെ നേരിൽ കണ്ടാൽ ചോദിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല ഒരു ഫോട്ടോ എടുത്തോട്ടെ ചോദിക്കും ഫോട്ടോ എടുക്കുന്നു അത്ര തന്നെ കൂടുതലൊന്നും ചോദിക്കാനില്ല അവരെ നേരിൽ കാണുക എന്നത് തന്നെ വലിയ ഒരു ഭാഗ്യമാണ് അതിൽ കൂടുതൽ വേറൊന്നും കിട്ടാനില്ല അപ്പം അത് തന്നെ അവരെ നേരിൽ കാണുന്നു എന്തെങ്കിലും സംസാരിക്കുന്നു ഒരു ഫോട്ടോ എടുക്കുന്നു അല്ലാതെ കൂടുതല് അവിടെ വേറെ ഒന്നും വേണ്ട ജസ്റ്റൊരു ഫോട്ടോ മതി ഇല്ലങ്കിൽ ഒന്ന് സംസാരിച്ചാൽ മതി അത്രേ ഉള്ളു അല്ലാതെ നമുക്ക് കൂടുതലായിട്ടൊന്നും ആഗ്രഹിക്കേണ്ടിയില്ല